നമ്മുടെ പ്രദേശത്തൊക്കെ ആളുകള് സാധാരണ അഭിമുഖീകരിക്കുന്ന ആരോഗ്യപ്രശ്നങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയ്നായിട്ട് പറയാം പോഷകാഹാരക്കുറവ് പിന്നെ പകർച്ച വ്യാധികള് ഇപ്പത്തന്നെ നമുക്ക് പറയാം നമ്മടൊപ്പം മെയ്നായിട്ടു നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് നിപ്പ സ്ഥിതീകരിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ നിപ്പ സ്ഥിരീകരിച്ചത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ജില്ലയിൽ തന്നെയായിരുന്നു ആദ്യമായിട്ട് അപ്പോൾ നമുക്കവിടെ കൂടുതലായിട്ടും അതായത് നമുക്ക് ഹോസ്പിറ്റല് കാ കാര്യങ്ങളൊക്കെ കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് രോഗികളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇതേപോലെ സ്ഥലത്തെന്ന് അതായത് പല ജില്ലകളിൽ നിന്നും രോഗികള് കാര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലയിലേക്കാണ് വരുന്നത് അപ്പോൾ അതായത് അത് ഹോസ്പിറ്റല് സൗകര്യങ്ങള് കാര്യങ്ങള് കൊണ്ട് തന്നെയാണ് അപ്പം നമുക്ക് കൂടുതലായിട്ട് അപ്പം അവര് അതായത് എല്ലാവരും ആശ്രിതൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ വരിക അപ്പം നമുക്ക് കൂടുതലായിട്ടും നമുക്ക് അവരുടെ അടുത്തെന്ന് ഇപ്പോൾ പകർച്ച വ്യാധിയൊക്കെയാണങ്കിൽ തന്നെ നമുക്ക് പെട്ടന്ന് അത് നമുക്ക് സ്പ്രെഡ് ആകാനുള്ള സാഹചര്യങ്ങള് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നമ്മളിത് സ്ഥിരീകരിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പം അവര് പോകുന്ന സ്ഥ പല സ്ഥലങ്ങളുണ്ടാകും അപ്പന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും സ്ഥിതീകരിച്ചിട്ടുണ്ടെങ്കി റൂട്ട് മാപ്പ് കാര്യങ്ങളക്കെ എടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടോന്നറിയണം അറിയണം പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കില് അവരെയൊക്കെ ഐസൊലേഷൻലാക്കണം അങ്ങനെ പല പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കേയുണ്ട് അപ്പം നമുക്ക് മെയ്നായിട്ട് പകർച്ച വ്യാധികളാണ് നമുക്കിവിടെ കോഴിക്കോട് ജില്ലയില് കൂടുതലായിട്ടും സാംക്രമിക രോഗങ്ങളും പോഷകാഹാര കുറവിനെക്കാളും കൂടുതലും നമുക്കുള്ളത് പകർച്ച വ്യാധികള് തന്നെയാണ്